ഇത് മൊബൈൽ ഷോപ്പല്ലേ എനിക്കൊരു ഫോൺ വേണമായിരുന്നു അത് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചത് ആ ഒരു പത്തായിരത്തിന് താഴെയുള്ള

ആ അതിൻ്റെ ഫീച്ചർസൊക്കെ ബാറ്ററി ലൈഫെല്ലാം എങ്ങനെയാണ് ആ പിന്നെ റാമും റോമൊക്കെയൊ ഫാസ്റ്റ് ചാർജിങ്ങ് വയർലെസ്സ് ചാർജിങ്ങുണ്ടോ വയർലെസ്സ് ഇല്ല അല്ലേ ആ അത് വാറൻ്റി ഗ്യാരൻ്റി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയുണ്ടോ ഓഫറ് വൺ ഇയർ വാറൻ്റി ഉണ്ടല്ലേ ആത് ആ

ഡിസ്പ്ലേ എങ്ങനെയാണ് ഇതിൻ്റെ സിക്സ് ഇഞ്ചല്ലേ ആ എൽ സി ഡിയാണോ എൽ ഇ ഡിയാണോ ഏതാണ് എൽ സി ഡിയാണല്ലേ ആ ഫ്രീയായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇയർ ഫോണോ മറ്റോ എന്തെങ്കിലും ഇയർഫോണ് വയറാണാ അതോ എയർപോഡ് അങ്ങനത്തെയാണോ അതു തന്നെയാണല്ലേ ക്യാമറ എങ്ങനെയാ എത്ര എം ബി പി എസ് ഫോർട്ടി എയിറ്റ് ആ നാല്പത്തെട്ട് എം പിയാണോ നിങ്ങളെ ഷോപ്പ് ടൗണിൽ തന്നെയല്ലേ ഞാൻ നോക്കിയിട്ട് വാങ്ങാം എന്നാൽ വന്നിട്ട് ഞാൻ നോക്കിയിട്ട് വരാം ആ ഓക്കേ എന്നാൽ ആ ആ ശരി ആ ശരി